ആ ഇത് ഇത് ബസ്മൻ്റെ ക്ലിനിക് അല്ലേ ന്യൂ ക്ലിനിക് ആ ഞാൻ ആ അതെ അതെ അല്ലേ ഞാൻ ഒരു പ്രോബ്ലം കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് എനിക്ക് പ്രോബ്ലങ്ങൾ ദേഹത്തിനൊക്കെ കുറച്ച് അസ്വസ്ഥതകളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് എന്ത് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ആ അതെ കണ്ണൂർ ആ കണ്ണൂർ പുതിയതെരുവ് എന്ന് പറയുന്ന സ്ഥലം അറിയാരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾ അവിടെ ഒക്കെ വന്നിട്ടുണ്ട് ക്ളാസുകൾ ഒക്കെ എടുത്തതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അതെ അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയട്ടേ എൻ്റെ ഒന്ന് ഒന്ന് പറയുന്നത് എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടി എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ അങ്ങ് പറ്റുന്നില്ല അത് എന്ത് കൊണ്ടോ ബോഡി അതിന് വേണ്ടി വഴങ്ങുന്നില്ല എല്ലാ രീതിയിലും ആ തൈറോയ്ഡ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ഇനി മുന്നോട്ട് ചെക്ക് ചെയ്യണോ എന്നും അറിയില്ല അതെ അല്ലേ ആ അതെ അതെ അല്ലേ അതെ അതെ പിന്നെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ചില ഫുഡ്ഡുകളൊന്നും അങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എത്രത്തോളം കണ്ട്രോൾ ചെയ്യാൻ വിചാരിച്ചാലും അങ്ങനെ പറ്റുന്നില്ല ഉം ഉം അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതുപോലെ തന്നെ പീരിയഡ്സിന്റെ കാര്യത്തിൽ പീരിയഡ്സ് വ വളരെ ഇറെഗുലർ ആണ് അത് എത്രത്തോളം ഞാൻ പല വീട്ടിൽ നിന്നുതന്നെ പല ഇത് ഒക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ട്രൈ ആ ബി എം ഐ ആ ബി എം ഐ ഒരുപാട് മുന്നേ നോക്കിയതായിരുന്നു അത് കൂടുതലാണെന്നാണ് അവ് ആ അതെ അതെ അതെ അതാണ് കാണിച്ചത് അതെ അല്ലേ അതെ അതെ ഓക്കെ ഓക്കെ

അതെ അല്ലേ ഇത് ഇതിപ്പം അതുപോലെ തന്നെ ഈ എക്സർസൈസുകൾ ചെയ്യുന്നത് ചെയ്യുന്നത് കൂടാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അതെ അല്ലേ അതെ അതെ അതെ

അതെ അല്ലേ ഓക്കെ ഓക്കെ അ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പീരിയഡ്സ് റെഗുലർ ആക്കാൻ എന്താ മെഡിസിൻസ് ഇല്ല മെഡിസിൻസ് അങ്ങനെ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ആ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ വരാം ഓക്കെ ഓക്കെ താങ്ക് ഓക്കെ ശരി ശരി കേട്ടോ ഓ